ഹലോ ഞാൻ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു വയറിംഗ് കോൾ ചെയ്യാൻ വേണ്ടി വീട്ടിൽ വയറിംഗ വയറിംഗ കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് അതായത് വീട്ടിൽ ഒരു ധാരാളം കോളുകളിൽ ഇടർച്ചയൊക്കെ വരാറുള്ള ഒരു പതിവായി രീതി പതിവായി കാണുകയാാണ് ഇപ്പോൾ ഏകദേശം ഞാൻ ഇപ്പോൾ ആ ഒരു ഡേറ്റിൽ ശരിയാക്കിയതിന് ശേഷം പലവട്ടം കോൾ ചെയ്തിട്ട് വരാതെയും അങ്ങോട്ട് കോൾ പോവാതെയും പല കോളുകൾ മാറി വരുന്നതുമായി പതിവായിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അപ്പോൾ ഇതിനെ കുറിച്ചു ഒരു ക്ലാരിഫിക്കേഷൻ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് അപ്പോൾ അത് ഒരു തെറ്റായ വേറിങ്ങ് കാരണമാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ പല കാര്യങ്ങൾ ഇത് അസൗകര്യം ഉണ്ടാവുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ ഇടയ്ക്കിടെ കോളുകളിൽ ഇടർച്ചകൾ സംഭവിക്കും അതായത് നമ്മൾ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ അങ്ങോട്ട് കേൾക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവിടെ നിന്ന് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റാതെയുള്ള ധാരാളം പ്രശ്നങ്ങൾ കോള് ചെയ്യുമ്പോൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് അപ്പോൾ കസ്റ്റമേഴ്സ് എത്രയും പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്നു ശരിയാവുമെന്നു പ്രതീക്ഷിക്കുകയാണ് ശരിയാക്കും അതുപോലെ നിങ്ങളുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പിന്തുണ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു